ഹലോ ആ വിവോ ഫൈവ് ജി ഉണ്ടോ വിവോ ഫൈവ് ജി ഉണ്ടോ എനിക്ക് വിവോയുടെ എ ഏറ്റവും ലേറ്റസ്റ്റായിട്ടുള്ള മോഡലാണ് വേണ്ടത് ഓ ശരി ശരി ആ അപ്പേക്കി നമ്മൾ ഇതിന് എ എത്ര രൂപ റേഞ്ച് വരും റേഞ്ച് വരും റേറ്റ് എത്ര രൂപ വരും പന്ത്രണ്ട് ജി ബിടെ അല്ല പന്ത്രണ്ട് ജി പന്ത്രണ്ട് ജി ബിടെ അല്ലേ നല്ലത് അതാവുമ്പോൾ കുറച്ചും കൂടെ സ്പെയ്സസും പിന്നെ നമുക്ക് ഉപയോഗിക്കാം കുറച്ചും കൂടെ നല്ലതല്ലേ ഉപയോഗിക്കാന് കുറച്ചൂടെ സ്മ്മൂത്തല്ലേ ആ ഫൈവ് ജി അല്ലേ

ആ അപ്പോൾ ഈ ഇ എം ഐ എന്ന് പറയും എനിക്കിപ്പോൾ ഓള്റെഡി ബജാജിന്റെ കാഡുണ്ട് അപ്പോൾ ഇ എം ഐ മന്തിലി എന്ത് വരും ആ പാന് കാര്ഡുണ്ട്

എനിക്ക് ഫെഡറല് ബാങ്കിലാ അക്കൗണ്ട് ഓ ഒരു രൂപ കൊടുത്താലും മതി അല്ലേ മുഴുവനും നാൽപ്പത് രൂപയല്ലേ വരുന്നത് നാൽപ്പതിനായിരം രൂപയെന്നല്ലേ പറഞ്ഞത് മുപ്പത്തയ്യായിരം അപ്പോൾ ഒരു രൂപ തരുമ്പോൾ മന്തിലി എന്ത് വരും സ്കീമൊന്നു പറയാമോ ഇ എം ഐടെ അതിന്റെ ചെറിയ സ്കീമുണ്ടോ അതല്ല ഞാൻ ചോദിക്കുന്നത് ഇ എം ഐ കുറച്ചും കൂടെ ചെറിയ ഇ എം ഐ കുറച്ചൂടെ ചെറിയ സ്കീമുണ്ടോ നാലായിരത്തി ഇരുന്നൂറ് ഉള്ളൂ അല്ലേ അതിന്റെ ക്യാമര് ക്യാമറ ക്ലാരിറ്റിയുടെ കാര്യമെന്ന് പറയാമോ എത്രത്തോളം ഉണ്ട് നല്ല പക്ഷേ അതിലൊരു കംപ്ലയിന്റ് ഇപ്പോൾ പിള്ളേരിങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ ഫോര് കെ റെസലൂഷനാണല്ലേ ആ അപ്ഡേറ്റ് വരുമ്പോൾ ഇഷ്യൂസ് വരൂന്നും ആ ഹാ അ ആണോ ആ ഹാ ഹ എന്നാൽ ഒരു കാര്യം ചെയ്യാം ഞാനിന്നാ വൈകീട്ടത്തേക്ക് നേരിട്ടങ്ങ് വരാം വന്നിട്ട് ഡീറ്റയില്ഡായിട്ടൊന്നു സംസാരിക്കാം അപ്പോൾ ശരി ഓക്കെ ഓക്കെ സാര് താങ്ക് യൂ താങ്ക് യൂ സോ മച്ച് ഓക്കെ